ബൈക്കോടിച്ചു തുടങ്ങുന്നവര്ക്ക് സംഭവിക്കാറുള്ള സാധാരണ ചെറിയ കുറെ തെറ്റുകളുണ്ട് അത് നമ്മൾ ആദ്യ ഘട്ടത്തിൽ തന്നെ അത് മാറ്റിയില്ലെങ്കിൽ അത് വളരെയധികം അപകടങ്ങളിലേക്കും അതിനെ നയിക്കും ആദ്യത്തെ ഒരു തെറ്റെന്തെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബൈക്ക് എടുത്ത് സ്റ്റാര്ട്ട് ചെയ്യുമ്പോൾ അത് ന്യൂട്ട്രലിലാണോ എന്ന് ചെക്ക് ചെയ്യാതെ തന്നെ ആ വണ്ടി സ്റ്റാര്ട്ട് ചെയ്ത് ആക്സിലറേട്ടറ് തന്നെ കൈ കൊടുക്കും അപ്പോൾ നമ്മൾ പെട്ടന്ന് ഒരു ആവേശത്തിൽ നമ്മൾ വെറുതേ ആക്സിലറേട്ടർ ഹാൻഡില് പിടിച്ച് തിരിക്കുന്നുണ്ടാകും അപ്പോൾ നമ്മളറിയാണ്ട് ബ്രേക്ക് പിടിക്കാനും മറന്നോവും അപ്പോൾ എന്തുണ്ടാവും വണ്ടി ഫ്രണ്ടിലേക്ക് കുതിച്ച് ചാടും ഇതാണ് ആദ്യത്തെ സ സാധാരണ ആൾക്കാർ ചെയ്യാറുള്ള തെറ്റ് അത് എങ്ങനെ ഒഴിവാക്കാന്ന് വെച്ചാൽ നമ്മൾ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ആദ്യം വണ്ടി ന്യൂട്രലിൽ ഇട്ട് അതിനുശേഷം വണ്ടി ഓൺ ചെയ്യുക എന്നുള്ള ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് പരിഹാര അതിനൊരു പരിഹാരം മായി ഇനി എന്ന തെറ്റെന്നു വച്ചാൽ ആദ്യം വണ്ടി ഓടിച്ചു തുടങ്ങുകയാണ് നമ്മൾ അപ്പോൾ എല്ലാവർക്കും നല്ല സ്പീഡിൽ പോകണം ആ സ്പീഡിൽ പോകണം സ്പീഡിൽ പോകണം എന്ന ആ ഒരു ആഗ്രഹം അത് അത്ര നല്ലതല്ല കാരണം അത് വളരെയധികം നമ്മുടെ ജീവനെ തന്നെ ക ജീവനെത്തന്നെ എടുക്കാവുന്ന ഒരു ചിന്തയായി തന്നെ മാറും കാരണം നമ്മൾ അങ്ങനെ ഒരു സ്പീഡിൽ പോകുന്ന നേരത്ത് നമുക്ക് എന്തോ ഭാഗ്യ ഭാഗ്യക്കേട് ക്കേട് എന്ന് പറയട്ടെ നമുക്ക് ബ്രേക്ക് പിടിക്കാൻ കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒരു പൂച്ച ചാടി അങ്ങനെ എന്തേലും സംഭവിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ ആ സമയത്ത് പറ്റില്ല അങ്ങനെയായിരിക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോവുകേയും അങ്ങനെ നമുക്ക് ഗുരുതരമായ പരിക്കുകൾ നേരിടുകയും ചെയ്യും നേരിടുകയും ചെയ്യും അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ വളരെ പതുക്കെ തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചു തന്നെ വണ്ടികൾ എല്ലാവരും ഓടിക്കുക പ്രത്യേകിച്ചും ബൈക്ക്